ഫോട്ടോ എടുക്കാൻ ഇഷ്ടമല്ലാത്ത ആരാണുള്ളത് ഇപ്പം നല്ലൊരു ആകാശം കണ്ടാലോ അല്ലെങ്കിൽ നല്ലൊരു സൺസെറ്റ് കണ്ടാലും അതൊക്കെ നമ്മള് ഫോണിലോ ക്യാമറയിലോ പതിപ്പിക്കാൻ ആഗ്രഹിക്കാത്തതായിട്ട് ആരും തന്നെ ഉണ്ടാകില്ല അപ്പോൾ എനിക്ക് ഫോട്ടോ എടുക്കാൻ ഇഷ്ടമാണ് നല്ലൊര് ആകാശവും നല്ലൊരു ക്ലൈമറ്റും നല്ലൊരു കാറ്റൊക്കെയുള്ളൊരു ഈവനിംഗ് സമയത്ത് നല്ല കാറ്റൊക്കെ ഉള്ള ഒരു ഗ്രൗണ്ട് അതൊക്കെ എടുക്കാനായിട്ട് എനിക്ക് വളരെ ഇഷ്ടമാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാനായിട്ട് എനിക്കത്രക്ക് ഇഷ്ടവല്ല പക്ഷെ എനിക്ക് ആരെങ്കിലും ഫോട്ടോ എടുത്ത് തരുന്നത് കാണാൻ ഇഷ്ടമാണ്